ഒരു നീണ്ട ബൈക്കിങ് യാത്രപോകണമെങ്കിൽ ഒരുപാട് തയാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് ഇപ്പോൾ ഒരു മാസത്തേക്കൊക്കെയുള്ളൊരു യാത്ര ഒക്കെ പോകണമെങ്കിൽ നമ്മൾ തുണികൾ തന്നെ ഒരുപാട് എടുക്കേണ്ടി വരും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നു പറഞ്ഞാൽ ബൈക്കു യാത്ര എന്നു പറഞ്ഞാൽ നമുക്ക് ഒരുപാടു സാധനങ്ങൾ കൊണ്ടുപോകാൻ ആയിട്ടുള്ള ഒരു സൗകര്യം ബൈക്കിൽ നമുക്കില്ല അപ്പോൾ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാറുള്ളത് എന്തെന്നു വെച്ചാൽ ബൈക്ക് യാത്രപോകുമ്പോൾ ഏറ്റവും കുറച്ചു സാധനങ്ങൾ കൊണ്ടു പോകാനാണ് എന്നാലും നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വളരെ കുറഞ്ഞ അളവിൽ കൊണ്ടുപോകാനാണ് ശ്രദ്ധിക്കാറ് അപ്പം ഞാൻ തുണിയൊക്കെ കൊണ്ടുപോകുകയാണെങ്കിലും ഒരുപാട് ജോഡികളൊന്നും എടുക്കാതെ കുറച്ചു ജോഡികളെടുത്തിട്ട് അതു വീണ്ടും വീണ്ടും ഉപയോഗിക്കാറാണ് പതിവ് ഞാൻ അലക്കിയലക്കി ഞാൻ പോയി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അലക്കിയിട്ട് ഉണക്കിയെടുത്തിട്ട് വീണ്ടുമതുതന്നെ ഉപയോഗിക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ എൻ്റെ ജോ തുണിയുടെ എണ്ണം ഞാൻ പരമാവധി കുറയ്ക്കും അതിനു ശേഷം അതിനുശേഷം ഞാൻ ചെയ്യുന്നത് എന്താണെന്നുവെച്ചാൽ എനിക്ക് വേണ്ട ഡെയിലി സാധനങ്ങൾ എനിക്കു വേണ്ട ഡെയിലി സാധനങ്ങൾ ഞാൻ അതായത് ഇപ്പോ പേസ്റ്റ് ബ്രഷ് സോപ്പ് ചീപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് എൻ്റെ ബാഗിൽ എപ്പോഴും എപ്പം യാത്ര പോയാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടു അതിനു മാത്രമായിട്ട് ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നെ വേണ്ട സാധനങ്ങൾ എന്നു പറയുന്നത് നമുക്ക് ചിലപ്പോൾ എല്ലായിടത്തും നമുക്കു നല്ലൊരു മുറിയോ കാര്യങ്ങളോന്നും കിട്ടണമെന്നില്ല അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ബെഡ് ഷീറ്റ് അങ്ങനെയുള്ള കുറച്ചു സാധനങ്ങൾ ഞാനെടുക്കാറുണ്ട് പിന്നെ ഇപ്പം ഞാനൊരു സ്ത്രീയെന്ന നിലയിൽ എനിക്ക് ഇടയ്ക്കു വേഷം മാറാനും കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് ഒന്ന് ബാത്റൂമിൽ പോകാനുമൊക്കെ എല്ലായിടത്തും അവസരം കിട്ടണമെന്നില്ല അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്നു വെച്ചാൽ ഞാനൊരു ഓൺലൈനിൽ നിന്ന് ഒരു ഒരു കവർ മേടിച്ചിട്ടുണ്ട് അതായത് നമുക്ക് എവിടെ പൊതു വഴിയിൽ നിന്നാണെങ്കിലും ഒരു ടെൻറ്റ് ചെറിയൊരു ടെൻറ്റ് പോലെയുള്ള ഒരു സംവിധാനമാണ് അതു വെച്ചിട്ട് നമുക്ക് അതിനകത്തു കയറി നിന്നാൽ പുറത്തുനിന്നുള്ളവർക്ക് ഒന്നും കാണില്ല അതിനകത്തു കയറിനിന്നു നമുക്ക് വേഷം മാറി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പോൾ അങ്ങനെയൊരു സംഭവം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ണിൽ നമ്മൾ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ണിനൊക്കെ വേദന എടുക്കാതിരിക്കാൻ ആയിട്ടുള്ള ഒരു ഗ്ലാസ് അല്ലെങ്കിൽ കണ്ണിലൊക്കെ പൊടി പോകാതിരിക്കാൻ ആയിട്ടൊക്കെ ആയിട്ട് ഒരു കണ്ണാടി ഞാൻ കൊണ്ടുപോകാറുണ്ട് അതുപോലെതന്നെ എൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ എടുക്കാറുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് പിന്നെ എടുക്കുക അത്യാവശ്യം എന്തെങ്കിലും മരുന്നുകൾ എടുക്കും ഇപ്പം നമുക്ക് ചെറിയൊരു പനിയോ തലവേദനയോ കാര്യങ്ങളൊക്കെ വന്നാലൊക്കെ നമുക്ക് ആശുപത്രിയിൽ പോകാതെ പിടിച്ചുനിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ചു മരുന്നുകൾ ഒക്കെ ഞാൻ എടുക്കാറുണ്ട് പിന്നീട് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് സാനിറ്ററി നാപ്കിനും കാര്യങ്ങളുമൊക്കെ കരുതാറുണ്ട് അതിൻ്റെ ആവശ്യം നമുക്ക് എപ്പോഴാണ് വരുന്നതെന്നു പറയാൻ പറ്റില്ല പിന്നെ ടിഷ്യു എന്തെങ്കിലും ഒരു ടവ്വൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് പിന്നീട് ആ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്രധാനമായും എടുക്കുന്നത്